ഞാനൊരു ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്തിരുന്നു അത് ആദ്യാദ്യം നല്ലതാണ് പിന്നെ അത് ഇങ്ങനെ കാലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ പൊട്ടുന്നത് കൊണ്ട് അതിങ്ങനെ കാലിലിങ്ങനെ ഒട്ടിപിടിക്കും അത് അതേയുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അത് അത്ര നല്ല സാധനമൊന്നുമല്ല പോളിസ്റ്ററാണ് പിന്നെ പോളിസ്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാലിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നത് ബെഡ്ഷീറ്റ് പിന്നെ കോട്ടനാണെങ്കിൽ അങ്ങനെ സംഭവിക്കൂല്ല ഇത് അതോണ്ട് കുറച്ചൊരു വിഷമം അതാണ് ഇതിൻ്റെ അതിൻ്റെയൊരു പ്രശ്നം അതുകൊണ്ട് പോളിസ്റ്ററിൻ്റെ വാങ്ങാതിരിക്കുക ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ കോട്ടൻ്റെ തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് എല്ലാത്തിനും നല്ലത്